ചിത്ര രചന പോലുള്ള കലകള് കുട്ടികൾക്ക് ആരംഭിക്കാനുള്ള ശരിയായ വയസ്സ് എന്ന് വെച്ചിട്ടുണ്ടങ്കില് ചെറിയ പ്രായം മുതലേ ചിത്രങ്ങളൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ടങ്കിൽ അത്രയും നല്ലതാണ് കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു ആൻ ഒരു പത്ത് വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും അതിനോട് നമ്മള് ആ ചിത്രമൊകെ വരക്കുന്നത് നമുക്ക് പെർഫെക്ട് ആയിട്ട് വന്ന് തുടങ്ങും അത് ഇപ്പോൾ ഒരു ആളെ വരയ്ക്കാൻ ആണെങ്കില് മുഖം ഒക്കെ വരയ്ക്കാനും ഭയങ്കര പാടാണ് അപ്പോൾ അത് പത്ത് വയസ്സ് ഒക്കെ ഒരു എന്താ പറയുക ഒരു മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് ഉണ്ട് അല്ല ഒരു അഞ്ച് വയസ്സിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സ് ആകുമ്പോഴേക്കും ആ മുഖം ഒക്കെ വരയ്ക്കുന്നത് ഒക്കെ നല്ല ഒരു വൃത്തിയില് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് വയസ്സില് തുടങ്ങുന്നത് ആയിരിക്കും ഏറ്റവും നല്ലത്